എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ളതെന്ന് വച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കാനായിട്ടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചിയും നെയ്ച്ചോറും ആണ് ഇറച്ചിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ കടയിൽ പോയിട്ടു മേടിച്ചിട്ടു വന്ന ഇറച്ചി ഈ കോഴിയിറച്ചി കോഴിയിറച്ചി നല്ലോണം പാചകം ചെയ്യാനും എനിക്കു പിന്നെ നെയ്ച്ചോർ ഉണ്ടാക്കാനും ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നെയ്ച്ചോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതായത് ഉരുളി വച്ച് അതിൻ്റെ അതിനകത്ത് മറ്റേ നമ്മളെ പച്ചരി അതിനകത്തിട്ട് കഴുകിയതിനു ശേഷം ഇട്ടു വാട്ടി അതിനകത്തേക്ക് കറുകപ്പട്ട അങ്ങനെ പല സാധനങ്ങളും ഇട്ടിട്ടു വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അത് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്താ പറയുക ദം പോലെ ഇടുക മുകളിൽ കുറച്ച് അതായത് മുകളിൽ കനലൊക്കെ വാരിയിട്ട് ഒന്ന് എന്താ പറയുക സൈഡിൽക്കൂടി എന്തെങ്കിലും ഇട്ടിട്ട് മൂടി വയ്ക്കുക മൂടി വച്ചതിനു ശേഷം ചിക്കൻ കറി ഉണ്ടാക്കുക ചിക്കൻ കറി ഉണ്ടാക്കാൻ പലതരം ചിക്കൻ കറികൾ ഉണ്ടാക്കുക ചിലപ്പോൾ എല്ലാത്തിനും പല പല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ അത് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക ചിക്കൻ കറി ഒരു സൈഡിലേക്കു മാറ്റി വച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇത് റെഡി ആയി അതായത് നെയ്ച്ചോർ റെഡി ആയി നെയ്ച്ചോറിലേക്ക് ചിക്കൻ എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ചിക്കനും ആയി ഇതായി ഈ നെയ്ച്ചോറും ചിക്കനും ആയി ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാനും കഴിക്കാനും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നെയ്ച്ചോറും ഇറച്ചിക്കറിയും ആണ്